കാലാവസ്ഥ വ്യതിയാനം കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മഴ തന്നെയാണ് മഴ വെള്ളപ്പൊക്കം മഴ കൂടുന്നത് അനുസരിച്ച് ഞങ്ങൾക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു ഈ വെള്ളപ്പൊക്കം കാരണം ഞങ്ങളുടെ കൃഷി ഇടങ്ങളെല്ലാം നാശത്തിലേക്കാണ് പോകുന്നത് നാശത്തിലേക്കെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരുപാട് വാഴകളും നെല്ല് കൃഷികൾ അങ്ങനത്തെ ഉള്ളത് ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം നശിക്കുകയാണ് ഈ വാഴകളും കൃഷികളുമെല്ലാം നശിക്കുകയാണ് അമിതമായ വെള്ളം കയറിക്കയറി ഈ വാഴകളെല്ലാം നശിക്കുകയാണ് വാഴകളിൽ ഒരുവിധം നമ്മൾ മുതൽ മുടക്കിയാണ് വാഴകൾ പണിയുന്നത് അതെല്ലാം നമുക്ക് അതിൽ നിന്ന് ഒന്നും കിട്ടാത്ത രീതിയിലേക്ക് ആകുകയാണ് വെള്ളപ്പൊക്കമാണതിന് കാരണം അത് കൂടുതൽ അനുഭവപ്പെടുന്നത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം നമുക്ക് അനുഭവപ്പെടുന്നത് ഈ വെള്ളപ്പൊക്കം മൂലം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് കാരണം പല കൃഷി ഇടങ്ങളിലും നശിക്കുന്നു വീടുകളിൽ വെള്ളം കയറുന്നു അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഉണ്ടാകുന്നു വെള്ളപ്പൊക്കം നമുക്ക് നല്ലതല്ല തരുന്നത് കൂടുതൽ മഴ ലഭിക്കുംതോറും നമുക്ക് നമ്മളുടെ കൃഷി ഇടങ്ങൾ നശിക്കുകയാണ് നമുക്ക് അത്രയും കൂടുതൽ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് അതുപോലെതന്നെ അമിതമായ ചൂടായാലും നമുക്ക് എന്താ പറയുക വരൾച്ച അനുഭവപ്പെടുന്നു വെള്ളമില്ലാത്തതുകൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നു എന്നാൽ വെള്ളം വന്നാലും ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നു ചുഴലിക്കാറ്റ് പോലെയുള്ള സംഭവങ്ങൾ നമ്മളെ കൃഷികളെ നശിപ്പിക്കാറുണ്ട് അത് നമ്മളുടെ വീടുകൾ ഇവിടെയുള്ള വീടുകൾ കൂടുതലും ഓട് ഓല അങ്ങനത്തെ മേഞ്ഞിട്ടുള്ള വീടുകളായതിനാൽ ആ വീടുകളെല്ലാം നാശത്തിലേക്ക് നയിക്കുന്നു അപ്പം കാലാവസ്ഥ മാറുന്നത് അനുസരിച്ച് നമുക്ക് ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ വ്യതിയാനങ്ങളെല്ലാം സംഭവിക്കുന്നത് ഉണ്ട് ധാരാളം വ്യതിയാനങ്ങൾ സംഭവിക്കണുണ്ട് കൃഷിയെയാണ് കൂടുതൽ ബാധിക്കുന്നത് കൃഷി നശിക്കുകയും നമുക്ക് കയറ്റുമതി ഇറക്കുമതി ഉള്ള കൂടുകയും ചെയ്യുന്നു അങ്ങനെ കൃഷി ഉൽപ്പന്നങ്ങൾക്ക് ധാരാളം പൈസ ചെലവഴിക്കേണ്ടി വരുന്നു ധാരാളം നഷ്ടങ്ങൾ വരുന്നു വെള്ളപ്പൊക്കമായാലും വെള്ളപ്പൊക്കം വരുമ്പോഴും നമുക്ക് ധാരാളം നഷ്ടങ്ങൾ അനുഭവിക്കുന്നു നഷ്ടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് നമ്മൾ മരങ്ങൾ വച്ച് പിടിപ്പിക്കുക മരങ്ങൾ ധാരാളം വച്ച് പിടിപ്പിക്കുക ഇപ്പം മരങ്ങളെല്ലാം വെട്ടിമുറിക്കുകയാണ് മലകൾ നിരത്തുകയാണ് ഈ ഒരു കാരണത്താൽ മാത്രമാണ് നമ്മളുടെ ഭൂമി ഇത്രയും നശിക്കുന്നത് മരങ്ങൾ വെട്ടാതെയും മറ്റു കാര്യങ്ങളും ചെയ്ത് പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം